ഈ ഈ തലമുറയിൽ കുട്ടികൾക്ക് കാർഷിക രംഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒത്തിരി ഗുണകരമായ കാര്യങ്ങളുണ്ട് കാരണം നമ്മുടെ ഈ നൂറ്റാണ്ടിൽ കുട്ടികളെല്ലാം വിദ്യാഭ്യാസം ചെയ്ത് മറ്റ് രാജ്യങ്ങളിൽ പോയി എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആ ആറ്റിറ്റ്യൂഡ് ആണ് അത് മാറി ഇപ്പം കാർഷിക രംഗത്ത് നല്ല സബ്സിടികൾ കൊടുത്ത് കൃഷിയിടങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുന്ന രീതിയാണ് മാതാപിതാക്കളുടെ ഇപ്പഴും പൂർവികരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അപ്പം നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് കൃഷി മേഖല ഇപ്പഴും സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് അപ്പം അതിൽ കുട്ടികളുടെ പ്രാധാന്യം കുട്ടികളെ ഉൾപ്പെടുത്തുക വെള്ളം നിലങ്ങൾ തന്നെ ആദ്യം കുട്ടികളെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇന്നവാ ഇന്ന കായലിൽ അല്ല ഇന്ന പാടത്ത് നമുക്ക് ഇത്രയേക്കർ നിലമുണ്ട് അവിടെ നമ്മളുടെ പിന്നെ നിലം ഇവിടെയാണ് കിടക്കുന്നത് ഇതാണ് ഇതിൻ്റെ രീതി കിടപ്പ് രീതി ഇതാണ് അങ്ങനെ അതിനെ പറ്റിയെക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് കുട്ടികളെ കാർഷിക രംഗത്തേയ്ക്കും പയ്യെ സാവകാശം കൊണ്ടുവരിക അതിനുശേഷം കുട്ടികളെ കൊണ്ട് എങ്ങനെയാണ് കൃഷിരീതി എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് വിത്തിടുന്നത് എങ്ങനെയാണ് അത് ഓരോ ഒരു ഏക്കർ ഒര് എക്ടർന് എത്ര കിലോ വിത്ത് വേണ്ടിവരും അത് എങ്ങനെ ചെയ്യാം അതെങ്ങനെയാണ് ഇടേണ്ടത് എത്ര മണിക്കൂറാണ് പിന്നേ വിത്തിന് നീര് കൊടുക്കേണ്ടത് എപ്പോഴെടുത്ത് കലക്കി വെക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കൃഷി ചെയ്യുന്ന കർഷകൻ്റെ ഒപ്പം ഒപ്പം നിന്ന് കുട്ടികളെ അത് മനസ്സിലാക്കി പഠിപ്പിച്ച് അതിലേക്കൊരു അവർക്കൊരു ആഭിമുഖ്യം വരുത്തിയെടുത്താൽ കുട്ടികളെ കാർഷിക രംഗത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലയിൽ ധാരാളം കാർഷിക മേഖലകളുണ്ട് കാർഷിക മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങളുണ്ട് ഇപ്പഴും ബഹുഭൂരിപക്ഷം വരുന്ന കുറേ ആൾക്കാരെങ്കിലും കാർഷിക കൃഷി ചെയ്താണ് ഉപജീവനം നടത്തുന്നതും സമ്പന്നരും അതുപോലെ ആയി മാറുന്നു അതൊക്കെ ഈ കുട്ടികളെ നമ്മൾ കൊണ്ടുപോകണം എന്താണ് നിലത്തിൽ നമ്മൾ വിത്തെറിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആ സെറ്റ് എന്താണ് അത് ഇത്രാം തിയതി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വളമിടണം പതിനഞ്ച് കഴിഞ്ഞ് ഇരുപതിനും നാൽപ്പതിനും മുപ്പതിനും ഇടയ്ക്ക് നമ്മൾ നടണം ഇതൊക്കെ ഈ പിള്ളേരെയും കൊണ്ട് നമ്മൾ കാർഷിക രംഗത്തേക്ക് പോയി അവിടെ ഇവരെ ഇത് കാണിച്ച് കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരിതിനോടൊരു രസം തോന്നും ഒരു രസമായിരിക്കണം കൃഷി എന്നത് രസവും ആ ചെറിയൊരു അധ്വാനവും കൂടെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം അല്ലാതെ ചേറിൽ കിടന്നുള്ള ഒരു വലിയ ഒരു കഷ്ടപ്പാട് പ്രയത്നമാണ് അത് അതിൻ്റെ ബുദ്ധിമുട്ടുകളാണെന്ന് ഉള്ള രീതി അവർക്ക് തോന്നാതിരിക്കാമെങ്കിൽ അവരെ നമുക്ക് കാർഷിക രംഗത്തേക്ക് പെട്ടെന്ന് അടുപ്പിക്കാൻ പറ്റും നിലവിലിപ്പം ഏതാനും കുറെ ആൾക്കാരെങ്കിലും കാർഷികരംഗം എന്നതിനെ പറ്റിയുള്ള ഒരു മൈൻഡ് കൃഷി കർഷകനാകണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളവരാണ് ഇപ്പഴും ഇപ്പഴും ഉണ്ട് അപ്പം അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കാർഷിക രംഗത്തുണ്ടാകാവുന്ന നേട്ടങ്ങൾ അതേതെക്കെ രീതിയിലാണ് ആ നേട്ടങ്ങളുണ്ടാക്കാൻ നമുക്ക് സാധിക്കുക എങ്ങനെയത് ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി നമ്മൾ കർഷകനായ നമ്മൾ ഇവരെ കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിക്കുകയും അല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസ രീതിയിൽ കുറച്ചുംകൂടെ ഒക്കെ ഉൾപ്പെടുത്തി കർഷകരിൽ ഈ പുതിയ കർഷകരെ കൃഷിയിലേക്ക് കൃഷിയിടങ്ങളിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് ഇങ്ങനെയെക്കെ സാധിക്കും ഇവിടെ നിലങ്ങളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് സാധിക്കും ഇപ്പം പഴയ കണക്കുള്ള യാത്ര സൗകര്യം യാത്ര ബുദ്ധിമുട്ടുകളില്ല സൗകര്യങ്ങളൊക്കെയുണ്ട് യാത്ര സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ കായൽ മേഖലകളിലൊക്കെ ഇപ്പം സുന്ദരമായിട്ട് പോയി നമുക്ക് തിരിച്ചു വരാം അധികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടില്ല പണ്ട് നമ്മൾ വള്ളങ്ങളിൽ തുഴഞ്ഞ് തന്നെ അല്ലേ പോവേണ്ടത് ഇപ്പം അതൊക്കെ മാറി ഇപ്പം കുഴൽ എൻജിൻ ഒക്കെ വച്ചുള്ള വള്ളങ്ങൾ ആയതുകൊണ്ട് കാർഷികരംഗത്ത് പോയി മടങ്ങിവരാൻ തിരിച്ചു വരാൻ നമുക്ക് സാധിക്കും അതുപോലെത്തന്നെ ഈ മേഖലയിൽ യന്ത്രവൽക്കരണം വന്നതോടുകൂടി കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ മാറിയിട്ടുണ്ട് അതൊക്കെ ഈ യുവതലമുറയ്ക്ക് പുതിയ തലമുറയ്ക്ക് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ കുട്ടികളെ വളരെ നല്ല രീതിയിൽ കാർഷിക രംഗത്തേക്ക് നമുക്ക് ആകർഷിക്കാൻ പറ്റും എന്നുള്ളത് നിസ്സംശയമാണ് ആ രീതിയിലേക്ക് നമ്മൾ വരണം